സാർ എൻ്റെ പേര് മരിയാന്നാണ് ഞാനെൻ്റെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കയാണ് മുകളിലത്തെ നിലയിലാണ് വാടകക്കാർ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒരു മീറ്ററാണുള്ളത് അപ്പം രണ്ട് പേരുടേം കറണ്ട് ബില്ല് അതിലാണ് രണ്ട് പേരും ഉപയോഗിക്കുന്നത് ആ ഒന്നിലാണ് വരുന്നത് അപ്പോൾ അമ്മ് മുകളിൽ വേറൊരു മീറ്ററും താഴെ വേറൊരു മീറ്ററും ആക്കി അത് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവർക്ക് സെപറേറ്റ് കറണ്ട് ബില്ലും സെപ്പറേറ്റ് മീറ്ററാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു